വിനോദവാർത്തകളെക്കുറിച്ച് പറയാണെങ്കിൽ വിനോദവാർത്ത നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെതന്നെ ബോളിവുഡ് വാർത്തകൾ ബോളിവുഡ് വാർത്തകളൊക്കെ നമ്മുടെ പല പല ദേശത്തെയും കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിവിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെതന്നെ അതു നമ്മുടെ ഏത് രംഗത്തും ഈ ഹോളിവുഡ് വാർത്തകൾ നമുക്ക് എത്രയും ശ്രദ്ധ അർഹിക്കുന്നതാണ് സാമൂഹ്യമാധ്യമങ്ങളെ വിനോദവാർത്തകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനോദവാർത്തകളും നമ്മുടെ ജീവിതത്തിനൊത്തിരി അറിവാണ് പ്രധാനം ചെയ്യുന്നത് ഏറ്റവും വിനോദവാർത്തകളെ താത്പര്യമുണ്ടോയെന്നു ചോദിച്ചാൽ വിനോദവാർത്തകളിൽ താത്പര്യമുണ്ട് ഇപ്പം പറയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളേ കൊണ്ട് നമ്മൾ പല പല അസ് സ്ഥലത്തേക്ക് ടൂറായിട്ട് പോകുന്നത് ടൂറിന്റെ സമയത്ത് പിള്ളേർക്ക് വിനോദവാർത്തകൾ കണ്ടിട്ട് പോകുകയാണെങ്കിൽ അതിനേക്കുറിച്ചുള്ള കൂടുതലറിവ് അവരുടെ കാഴ്ച്ചയിലൂടെ അവർക്ക് ലഭിക്കും അതുകൊണ്ട് അത് ഏറ്റവും ശ്രദ്ധയർഹിക്കുന്നതാണ് ഈ വിനോദവാർത്തകൾ അതുപോലെതന്നെ അതുപോലെതന്നെ പറയുന്നതാണെങ്കിൽ വോളിവുഡ് വാർത്തകൾ ബോളിവുഡ് വാർത്തകൾ ഒത്തിരി ഒത്തിരിയും നമ്മുടെ ദേശത്തിന് അത്യാവശ്യമാണ് എങ്കിലെ നമ്മളറിവിൽ മുന്നോട്ട് വളരത്തുള്ളു സ് ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവിധ അറിവുകളും ഈ വോളിവുഡ് വാർത്തയിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും ഏറ്റവും ഇഷ്ടമെന്ന് പറയുകയാണെങ്കിൽ ഹോളീവുഡ് വാർത്തകൾ തന്നെയാണ് അത് നമ്മുടെ അറിവിന്റെ മേഖലയിലേക്ക് ചെന്നെത്താനുമൊക്കെ നമുക്ക് പിടിച്ച് പറ്റുന്നത് ഈ ബോളിവുഡ് വാർത്തകളാണ് സാമൂഹ്യമാധ്യമങ്ങൾ വിനോദവാർത്തകളെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളൊത്തിരിയേറെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഒരു അറിവ് ഏതിനേക്കുറിച്ചും പക്വമായൊരറിവ് സമ്പാദിക്കാൻ നമ്മൾ വളർന്നുവരുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകയാണ് നമ്മളറിവിൽ വളർന്നാൽ മാത്രമെ നമ്മുടെ ഒരു ദേശത്തെ മുന്നോട്ടു വളർത്തുവാൻ നമുക്ക് സാധിക്കു നമ്മളറിഞ്ഞാലെ മറ്റുള്ളവരെ നമുക്ക് അറിവിലേക്ക് വളർത്തുവാൻ സാധിക്കു അപ്പം അറിവിന്റെ മേഖലകൾ വാതായനങ്ങൾ മുഴുവൻ തുറന്നുകൊടുക്കുന്ന ഒരു ദേശമാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിൽ വാർത്തമാധ്യമങ്ങളെന്നു പറയുന്ന ടീ വിയുണ്ട് പല പല ചാനലുകളുണ്ട് ടീ വിയിലൂടെ കിട്ടുന്ന ചാനലുകൾ പലത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും ഏതു തരത്തിലുള്ളത് വേണേലും നമ്മൾ ഒന്ന് ടച്ച് ചെയ്താൽ ഒന്ന് റിമോട്ടൊന്ന് തിരിച്ചാൽ മതി അതനുസരിച്ച് ഒത്തിരിയൊത്തിരിയും അറിവുകൾ ഏ എവിടേക്ക് വേണമെന്നു നോക്കിയാൽ മതി അതു മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കുവാനായിട്ട് ഈ മാധ്യമങ്ങൾക്ക് സാധിക്കും അങ്ങനെ വിനോദ വാർത്തകളും ബോളിവുഡ് വാർത്തകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എല്ലാത്തരത്തിലും സമയം പോലെത്തന്നെ എല്ലാം അറിവുമാർജിച്ചെടുക്കുവാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ സാമൂഹിക മാധ്യമങ്ങൾ വിനോദ വാർത്തകൾ ഒക്കെത്തന്നെ നല്ലതാണ് അത് അറിവ് കൂടാതെ പക്വമായ അറിവിലേക്ക് വളരുന്ന സാമൂഹിക മാധ്യമങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തെ